നിങ്ങളുടെ ഏജൻസിന്ന് ഇന്നലെ ഞാനൊരു വണ്ടി വിളിച്ചിരുന്നു നിങ്ങളാ വണ്ടി വിട്ടു പക്ഷേ ആ വണ്ടിക്ക് ഒരു വണ്ടിയുടെ ഡ്രൈവറിന് ഒരു മാസ്ക്കോ അല്ലെങ്കിൽ ഒരു കോവിഡ് സംബന്ധമായ സുരക്ഷ സാഹചര്യം ഒന്നും ആ വണ്ടിക്കകത്തില്ല അതുപോലെ വണ്ടി വൃത്തിഹീനമായിട്ട് അത് എല്ലാം കിടക്കുവാണ് കാരണം ഞാനും എൻ്റെ ഫാമിലിയുമാണ് യാത്ര ചെയ്യുന്നത് അതിനകത്തൊരു കുട്ടിയുണ്ട് അപ്പം ഈ ഡ്രൈവറിനാണെങ്കിൽ ഒരു ചുമയുടെ ലക്ഷണം ഉണ്ട് ചുമക്കുന്നുമുണ്ട് പക്ഷേ അത് ആ ഒരു സിറ്റുവേഷനിലെ ഈ ഡ്രൈവറ് വണ്ടിക്കകത്താണെങ്കിൽ വൃത്തി ആകെ പ ച ചപ്പും ചവറായിട്ട് കിടക്കുവാണ് അങ്ങനുള്ള വണ്ടിയാണ് വിട്ടത് അപ്പം അങ്ങനെ അത് ആ ഡ്രൈവറിനെ ഇങ്ങനെ നമ്മളെ നമുക്ക് ആ ഡ്രൈവറ് ഡ്രൈവറിനെ ഞങ്ങൾ ചോദിച്ചു ഡ്രൈവറ് ചോദിച്ചിട്ട് ഡ്രൈവറ് എന്താ മാസ്ക്കില്ലാത്തേന്ന് ചോദിച്ചപ്പോൾ പുള്ളി മൈൻഡ് ചെയ്തില്ല പുള്ളി നമ്മളെ ഒരു എന്തൊ ഒരു പുള്ളീടെ എന്തോ ഒരു അധികാരം പോലെ അങ്ങ് ഇരിക്കുന്നു അപ്പോൾ ഇത് പ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് ഒരാ ഒരു റീപ്ലേ നല്ല റിപ്ലേ നല്ല റിപ്ലേ കിട്ടുന്നില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി എങ്കിലും ഒരു നല്ല വൃത്തിയും ഇനിയും വണ്ടി വിടുമ്പോൾ നല്ല വൃത്തിയുള്ള ഒരു വണ്ടി വിടുകയും ഒരു മാസ്ക്ക് ധരിച്ച ഒരു ഡ്രൈവറിനേം കൂടെ വിടണം